ഇന്ത്യയിലെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ കാലാവസ്ഥയെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽത്തന്നെ പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ കാലാവസ്ഥ ഭയങ്കര മഞ്ഞ് കാലമാണ് മഞ്ഞുവീഴ്ചയാണ് ജമ്മു കശ്മീരിലുള്ളത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള കാലവസ്ഥയാണ് ജൂൺ ജൂലായ് ആഗസ്റ്റ് മാസങ്ങളിൽ ഭയങ്കര മഴയുള്ള കാലാവസ്ഥ ആണ് ഡിസംബർ മാസത്തിലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഭയങ്കരം ചൂടുള്ള കാലാവസ്ഥ ആണ് പിന്നെ ദുബായിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മഴ തീരെ കുറവുള്ള കാലാവസ്ഥ ആണ് മഴയ്ക്ക് പകരം ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ ആണ് ദുബായ് രാജ്യങ്ങളിൽ ഉള്ളത് ഇന്ത്യയിലെ സംബന്ധിച്ച് പല വ്യത്യസ്തമായ രീതിയിലും പല സംസ്ഥാനത്തും പല രീതിയിലുള്ള കാലാവസ്ഥയാണ് ഉള്ളത്